പാലക്കാട് സ്റ്റേഡിയത്തിൻ്റടുത്തുള്ള എൻഎംആർ റസ്റ്റോറൻ്റല്ലേ എൻ്റെ പേര് ഷാഹിറ ഞാൻ ഒറ്റപ്പാലത്ത് നിന്നാണ് വിളിക്കുന്നത് ഞാനവിടെയാണ് പഠിക്കണത് ഒറ്റപ്പാലം നെഹ്റു കോളേജിലാണ് ഞാൻ പഠിക്കുന്നത് ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിക്കണേ അപ്പോൾ ഇവിടെ ഹോസ്റ്റലില് ബേർഡേ ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് എന്തൊക്കെയാണ് ഫുഡ് എന്ന് പറഞ്ഞാൽ പത്ത് പേർക്കുള്ള പൊറോട്ട പത്ത് പേര്ക്കുള്ള ചിക്കൻ ബിരിയാണി പത്ത് പേര്ക്കുള്ള വെജിറ്റബിൾ ബിരിയാണി പതിനെട്ട് അൽഫാമ് പതിനഞ്ച് പത്തിരി പതിമൂന്ന് അൽഫാം ഇതൊക്കെയാണ് വേണ്ടത് എവിടെ കറക്റ്റായിട്ട് പറയണം പറഞ്ഞ ഒറ്റപ്പാലം കോളേജിൻ്റടുത്ത് വന്ന് എന്ന് പറഞ്ഞ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാനവിടെ വന്ന് കളക്ട് ചെയ്തോളാം ങ്ങള് പറഞ്ഞ സാധനങ്ങൾ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ അവിടെ വന്ന് കളക്ട് ചെയ്തോളാം അതിൻ്റടുത്ത് തന്നെയാണ് ഹോസ്റ്റല് ഞാ ഒറ്റപ്പാലം കോളേജിൻ്റവിടെ വന്നാൽ മതി